എന്തായിരുന്നു പാനി

ആ പാനി ഇവിടെ നമ്മുടെ ലൈബ്രറിയില് രജിസ്റ്റര് ചെയ്തിട്ടുള്ളതാണോ അങ്ങനെയാണെങ്കില് കാര്ഡുമായിട്ട് വന്നാല് മതി ഐ ഡി കാര്ഡുമായിട്ട് വന്നാല് മതി കയ്യിലിപ്പം എത്ര പുസ്തകമുണ്ട് ആ ഒരെണ്ണം കൂടെ എടുക്കാം അങ്ങനെയാണെങ്കില് നമ്മളൊരു പുസ്തകം എടുത്താല് അത് രണ്ടാഴ്ചയ്ക്കുള്ളില് തിരിച്ച് വെയ്ക്കണമെന്നുള്ളതാണ് ലൈബ്രറിയുടെ നിയമം ഉം അപ്പോളത് നീട്ടിയെടുക്കണമെങ്കില് ഇവിടെ വന്ന് പറഞ്ഞിട്ട് നീട്ടിയെടുക്കാവുന്നതാണ് ആ അത് നമ്മുടെ ലൈബ്രറിയില് പേര് ചേര്ത്തിട്ടുള്ള രജിസ്റ്റര് ചെയ്തിട്ടുള്ള പിള്ളേര്ക്കേ എടുക്കാന് പറ്റുകയുള്ളൂ അങ്ങനെ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കില് അവര് വന്ന് രജിസ്റ്റര് ചെയ്താല് മതി ഉം നോവലുകള് ചെറുകഥകള് ലേഖനങ്ങള് അങ്ങനെ എല്ലാതരവുമുണ്ട് നാടകങ്ങള് എല്ലാമുണ്ട് ആ ബുക്ക് എടുത്തിട്ടെന്തായി ആ ആ ആ ആ നിങ്ങള്ക്കത് നീട്ടി എടുക്കണമെങ്കില് ഇവിടെ വന്ന് ഒന്നുകൂടി പുതുക്കിയെടുത്താല് മതി ആ തരും നിങ്ങളിവിടെ വന്ന് അത് ആ പുതുക്കി രണ്ടാഴ്ചയായെങ്കില് പുതുക്കിയെടുക്കണം അല്ലെങ്കില് ഫൈന് അടയ്ക്കേണ്ടി വരും ആ പത്ത് രൂപയാണ് ഉം ഒരാഴ്ച താമസിച്ചാല് നമ്മളൊരു ഡേറ്റ് പറയുന്നുണ്ടല്ലോ ആ ഡേറ്റില് വെച്ചില്ലെങ്കില് നമ്മള് പത്ത് രൂപ ഫൈനടയ്ക്കണം

ഉം ഉം ഉം ഇല്ല ഇല്ല ഉം അല്ഫോണ്സാമ്മയുടെയുണ്ട് ത്രേസ്യാമ്മയുടെയുണ്ട് ചാവറയച്ചന് അങ്ങനെ നമ്മുടെ കെ കേരളത്തിലെ എല്ലാ വിശുദ്ധരുടെയുമുണ്ട് ഈ ഭാരതത്തിലെ എല്ലാ വിശുദ്ധരുടേതുമുണ്ട്

ഇംഗ്ലീഷും ഇംഗ്ലീഷുമുണ്ട് ആ അവിടേക്ക് വന്നാല് മതി ഇനി കൂടുതല് കാര്യങ്ങളെക്കെ അറിയണമെങ്കില് ഒരു ദിവസം ലൈബ്രറിയില് വന്നാല് മതി അപ്പം നമുക്ക് സംസാരിക്കാം ഓക്കെ ഓക്കെ